ഒരു ഹാൻഡ് പമ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എന്നോടു ചോദിച്ചാൽ എനിക്കതിൻ്റെ പ്രവർത്തന രീതിയൊന്നും അറിയത്തില്ല കാരണം അതൊരു കൈൻഡ് ഓഫ് ബോർവെൽ ആണെന്നു മാത്രം എനിക്കറിയാം അതെങ്ങനെ കുത്തുന്നു എന്ന് നോക്കിയാൽ വണ്ടികൾ ഇങ്ങനെ ഒരു വലിയ വണ്ടി വന്നിട്ടിങ്ങനെ കുത്തുന്നു എന്ന് അല്ലാതെ എനിക്കതിനെപ്പറ്റി വലിയ പരിചയം ഒന്നുമില്ല അതിനകത്ത് കുറേ ആൾക്കാരും കഷ്ടപ്പെട്ടാണത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം അതിൻ്റെ പ്രവർത്തന രീതികളൊന്നും എനിക്കറിയത്തില്ല എന്തോ മോട്ടറും പൈപ്പുമെന്നൊക്കെ വെച്ചിട്ടാണെന്ന് എനിക്കറിയാം അതല്ലാതെ എനിക്ക് വലുതായിട്ട് അറിയില്ല പിന്നെ ഹാൻഡ് പമ്പിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലിവറിൽ പിടിച്ച് താഴ്ത്തിപ്പൊക്കി താഴ്ത്തിപ്പൊക്കി അങ്ങനെ പമ്പ് ചെയ്താണ് എടുക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതിൻ്റെ മോട്ടർ അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നു ചോദിച്ചാൽ മോട്ടറായിരിക്കും അതിനകത്ത് അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ടെക്നിക്കായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഹാൻഡ് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ചാണ് അതിനകത്ത് നമ്മൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന അത്രയും എനിക്കറിയാം പിന്നെ ഹാൻഡ് പമ്പ് ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ടും ഇല്ല പണ്ട് കുട്ടിക്കാലത്തൊക്കെ എൻ്റെ നാട്ടിലുണ്ടായിരുന്നെങ്കിലും എനിക്കത് കൗതുകമായിരുന്നു അപ്പോൾ ഞാൻ കൗതുകത്തോടെയൊക്കെ പോയി ജസ്റ്റ് ചുമ്മാ ആൾക്കാരൊന്നുമില്ലാത്തപ്പോൾ ചെന്ന് ജസ്റ്റ് ഇങ്ങനെ താഴ്ത്തി വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്കതിങ്ങനെ ക്യു നിൽക്കേണ്ടി ഒന്നും വന്നിട്ടില്ല പിന്നെ വേനൽക്കാലത്ത് വരണ്ടു പോകുമോ എന്നു ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള കുഴൽക്കിണർ വേനൽക്കാലത്ത് വറ്റി പോവാറുണ്ട് അപ്പോൾ ഇതും വറ്റി പോവാറുണ്ട് എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയൊക്കെ എനിക്ക് ഈ ബോർവെല്ലുകളെ പറ്റി എനിക്കറിയത്തുള്ളു സോറി ബോർവെലല്ല നമ്മുടെ ഹാൻഡ് പമ്പുകളെപ്പറ്റി എനിക്കറിയത്തുള്ളു ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഹാൻഡ് പമ്പുകളെപ്പറ്റി പറയാൻ അറിയത്തില്ല ഇതിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചായാലും എനിക്കിത്രയൊക്കെ അറിയത്തുള്ളു ഇതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല